ആ ഞാൻ കുറച്ച് മുൻപ് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ആ അത് തന്നെ ആ അപ്പോൾ എനിക്ക് അതിൽ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ ഞാൻ അത്രയും പ്രോഡക്റ്റ്സ് ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല സൊ അപ്പോൾ നിങ്ങൾ അത് കുറച്ച് ഇനങ്ങൾ അതിൽ നിന്ന് കുറക്കാൻ വേണ്ടിയിട്ടു ഞാൻ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണെ ആ അതെ ആ അവിടേക്ക് തന്നെ പറഞ്ഞില്ലായിരുന്നോ കോഴിക്കോട് ആ ബീച്ചിന് സമീപം ആ അത് തന്നെ അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ലിസ്റ്റ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്തു തരാം ആ സാധനങ്ങൾ ഒഴിവാക്കിട്ട് ബാക്കി സാധങ്ങൾ മാത്രം എനിക്ക് ഡെലിവറി ചെയ്താൽ മതി ആ ഓക്കേ ആ അപ്പോൾ അതിൻ്റെ പെയ്മെൻറ് ഞാൻ അത്രയും കുറച്ച് ചെയ്താൽ മതിയല്ലോ ആ അത്രയും സാധങ്ങൾ എനിക്ക് വാങ്ങേണ്ടതായിട്ട് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം അപ്പം ആ സാധനങ്ങളൊക്കെ കുറച്ചിട്ട് ബാക്കിയുള്ള സാധങ്ങൾ മാത്രമേ എനിക്ക് കൊണ്ട് വന്ന് തന്നാൽ മതി ആ ഓക്കേ താങ്ക് യൂ ആ ഓക്കെ താങ്ക് യൂ എന്നാൽ ശരി ആയിക്കോട്ടെ